എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമായിരുന്നെങ്കിലും പിന്നേ ഇപ്പം ഒരു മനുഷ്യനെ വരച്ചാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വരച്ചു കഴിയുമ്പോൾ അല്ല ഒരു പെൺകുട്ടിയെ ചെറിയ ഒരു പെൺകുട്ടിയെ വരയ്ക്കുമ്പോൾ അതിൻ്റെ മുടി വരയ്ക്കാൻ അറിയത്തില്ല കാല് വരയ്ക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഡ്രസ്സ് വരയ്ക്കാൻ അറിയത്തില്ല അതിന് എൻ്റെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തി അവൾ നന്നായിട്ട് വരയ്ക്കുന്നതായിരുന്നു ഞാൻ ആ കൂട്ടുകാരത്തിയോട് പോയി ചോദിച്ചു എടീ ഇത് എങ്ങനെയാണ് ഒന്ന് ഒന്ന് ഹെൽപ് ചെയ്യാമോ എന്നു അപ്പം അവൾ അത് മുടി വരയ്ക്കാൻ സഹായം കാണിച്ചു തന്നു കാല് വരയ്ക്കാൻ ആ കുട്ടിയുടെ ഡ്രസ്സ് ഇടാൻ അങ്ങനെയൊക്കെ കാണിച്ചു തന്നു സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു എടീ നീ അങ്ങനെ വഷമിക്കേണ്ട എപ്പോഴും ഞാൻ നിനക്കു വരച്ചു തന്നാൽ നീ പഠിക്കുക ഇല്ലല്ലോ നീ തന്നെ വരയ്ക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ അപ്പം നമുക്ക് വരയ്ക്കേണ്ട ഇതെല്ലാം നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് കിട്ടും ഏത് കളറ് കൊടുക്കണം അത് എങ്ങനയാണ് വരയ്ക്കണ്ടേ എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ വരയ്ക്കാൻ എളുപ്പമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് വരച്ചു കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും അപ്പം അതൊക്കെ നോക്കിയാണ് ഇപ്പം എല്ലാം ഇപ്പം കൂട്ടുകാരിത്തിയുടെ സഹായം ഇപ്പം ഇല്ല കാരണം യൂട്യൂബ് അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടും അല്ല പറയുമ്പം നമുക്ക് അത് കിട്ടും അങ്ങനെ ഒരുപാട് സഹായിച്ചു അങ്ങനെ പലരുടേയും കൈകളിലൂടെ സഹായിച്ചു ഇപ്പം ഒരു നല്ല ഒരു മനുഷ്യരൂപം വരയ്ക്കാൻ അങ്ങനെ ഒരു ഇതായി ഒരു പ്രാക്ടീസ് ആയി ഇന്ന് നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് അല്ലാതെ വേറെ വലിയ രീതിയിൽ ആയിട്ടൊന്നും വലിയ പടങ്ങൾ എടുക്കുകയോ അങ്ങനെ വരയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല പിന്നെ ഒരുപാട് കൂട്ടുകാരത്തികൾ ഒരു കൂട്ടുകാരത്തി എന്നല്ല ഒരുപാട് കൂട്ടുകാരത്തികൾ സഹോദരിമാർ പടം വരയ്ക്കാൻ അറിയാവുന്നവർ ഉണ്ട് ഇപ്പം മക്കളായപ്പം പിന്നെ മോൾ ഉണ്ട് അവൾ ഒത്തിരി പടം വരയ്ക്കും അവൾ കാണിച്ചു തരും അമ്മെ അത് അങ്ങനെ അല്ല അമ്മേ അത് ഇങ്ങനെയാണ് അമ്മയ്ക്ക് യൂട്യൂബിനെക്കാളും നന്നായിട്ട് ഞാൻ വരിച്ചു തരാം കാരണം ദൈവം അവൾക്ക് ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവിലൂടെ അവൾ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും അപ്പം ഏത് പടം വരയ്ക്കണം ഇങ്ങനെ വയ്ക്കണം അമ്മേ കൈ ഇങ്ങനെ പിടിക്കണം അല്ല പെൻസിൽ ഇങ്ങനെ പിടിക്കണം കടലാസ് ഇങ്ങനെ വയ്ക്കണം എന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ നല്ല നല്ല പടങ്ങൾ വരയ്ക്കാൻ ഒത്തിരി ഇങ്ങനെ സഹായിച്ചു അതുകൊണ്ട് പടം വരയ്ക്കാൻ ഇങ്ങനെ വലിയ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതെ സാധാരണ രീതിയിൽ എനിക്ക് വരയ്ക്കാൻ സാധിച്ചു എന്നെ ഒരുപാട് പേര് സഹായിച്ചു പിന്നെ എൻ്റെ മോൾ എൻ്റെ ഇളയ മോളാണ് എനിക്ക് എല്ലാം നന്നായിട്ട് വരയ്ക്കാനും പഠിക്കാനും എന്നെ സഹായിച്ചത്